ഞങ്ങളുടെ ഹിന്ദു മത ആചാരപ്രകാരം ആദ്യം പെണ്കുട്ടിയുടെ വീട്ടിലേക്ക് പെണ്ണുകാണല് ചടങ്ങ് നടക്കും അതുകഴിഞ്ഞ് പെണ്കുട്ടിയെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ ചെറുക്കന്റെ വീട്ടിലേക്ക് ചെല്ലാന് പറയും അവിടെച്ചെന്നു ചെറുക്കന്റെ വീടും ആള്ക്കാരെയും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ രണ്ടു വീട്ടുകാരും തമ്മില് ഒരു ഒത്തുകൂടല് നടക്കും അതുകഴിഞ്ഞ് ഒരു മോതിരമാറ്റം നടക്കും പിന്നെ മോതിരമാറ്റം നടന്നുകഴിഞ്ഞാല് പിന്നെ വിവാഹത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചു വിവാഹം ന വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായി വിവാഹത്തിന്റെ അന്ന് വ വരനും ബന്ധുക്കളും വരുമ്പോൾ ദ താലവുമൊക്കെയായിട്ട് ഞങ്ങള് പോയി എതിരേറ്റ് പൂവിട്ട് പൂജിച്ച് കാലൊക്കെ കഴുകി വീട്ടിൽ കയറ്റി കല്യാണചടങ്ങൊക്കെ നടത്തും പിന്നെ കുട്ടിനെ പുറത്തേക്ക് ഇറക്കുന്നത് അമ്മായി എന്ന ഞങ്ങളുടെ ഹിന്ദു ഇതില് പ്രചാരം അമ്മായിയാണ് കുട്ടീനെ വരന്റെയടുത്തെക്ക് കൊണ്ട് എത്തിക്കുന്നത് അങ്ങനെ താലി കെട്ട് കഴിഞ്ഞുകഴിഞ്ഞിട്ട് വലം വച്ച് പൂജാരിയുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പോൾ കല്യാണത്തിന് മുന്നേ ഒരു ഹല്ദിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊരു ആചാരത്തിൽ ഉള്ളതല്ല അതിപ്പോൾ ഒരു എല്ലാവര്ക്കും കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ ആഡംബരാണത് അങ്ങനെയൊക്കെയായിട്ടാണ് ഞങ്ങളുടെ കല്യാണങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നത്